ഞാനൊരു ക്യാബ് രണ്ടരയായപ്പോൾത്തന്നെ ബുക്ക് ചെയ്തിരുന്നു ഇന്ന് എറണാകുളത്തുനിന്ന് കൊല്ലത്തേക്ക് പോകാനായിരുന്നു കൊല്ലത്ത് എനിക്ക് അർജെൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇതുവരെ നിങ്ങളുടെ ഡ്രൈവറുടെ ഉത്തരവാദിത്തക്കുറവ് കാരണം വന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവനം എനിക്കിഷ്ടപ്പെട്ടിട്ടുമില്ല എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോവാൻ താൽപ്പര്യവും ഇല്ല ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു നിങ്ങളുടെ റേയ്റ്റിംഗിന് ഞാൻ മാർക്ക് കുറയ്ക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ ഉത്തരവാദിത്തക്കുറവ് എൻ്റെ പ്രതികൂലമായ രീതിയിൽ ആയതുകൊണ്ട് ഇത് ശരിയായ നടപടിയും അല്ലാത്തതുകൊണ്ടും നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്